ആ കേൾക്കാം കേൾക്കാം കേൾക്കാം കേൾക്കാം എ പോകണം ചേച്ചി ചേച്ചി കഴിഞ്ഞ വട്ടം എവടെപ്പോയായിരുന്നു സാധനമെടുത്തത് ഓക്കെ അവിടാണോ ചേച്ചി ആ ആ അതല്ല ഞാൻ ചോദിച്ചത് അവിടെ എങ്ങനെയാണ് റേയ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഫാൻസി ഐറ്റമല്ലേ അപ്പം ഇന്നിപ്പം പുതിയ തരം പുതിയ കളക്ഷനകത്ത് പെട്ടെന്ന് എന്ത് കച്ചവടം ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റംസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ എടുത്താലല്ലേന്ന ആ വെറൈറ്റി അതെ അതെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വേണം എടുക്കാൻ കോമ്പോസെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് കോമ്പോസെറ്റിന്റെ ഓഫാറൊക്കെ ഇട്ട് കഴിയമ്പോഴത്തേക്കും നമ്മുടെ കടയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ കാടയിലോട്ട് പിടിച്ച് നിർത്താൻ പറ്റും അപ്പാ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണം നമ്മൾ എടുക്കാൻ നമ്മൾക്ക് റേറ്റ് ആ ആ അപ്പം നമ്മൾക്ക് അതിനൻസരിച്ചിട്ടുള്ള സാധനങ്ങൾ വേണം നമക്ക് എടുക്കാൻ അപ്പം നമ്മുടെ നമ്മൾക്ക് പറ്റിയ റേറ്റിന് എടുത്താലേ നമുക്ക് അത് ലാഭമായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ

എന്നാൽ അതെ അതെ ഓക്കെ അപ്പം നമുക്ക് നാളെ ഒരു പത്ത് മണിയാകുമ്പഴത്തേക്കും പോയതല്ല ഒന്ന് കളക്റ്റ് ചെയ്തു നോക്കിയാലൊ എല്ലാ ഒന്ന് പോയി നോക്കിയാലൊ ആ ആ അപ്പോൾ നമുക്ക് കംഫോട്ട് ആകുന്ന രീതിയിലുള്ളകാരണം നമ്മൾ ഒരു സംരംഭകരല്ലെ നമ്മൾക്ക് അത് അനുസരിച്ചിട്ട് വേണ്ടെ അതിന് സാധനങ്ങളും എല്ലാം നമുക്ക് കളക്റ്റ് ചെയ്തു വയ്ക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ള ഒരു ലിസ്റ്റ് ചേച്ചി തയാറാക്കി ക്കൊണ്ട് വരുവൊ ഓ അല്ലെ ലിസ്റ്റിന് അകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ പുള്ളാരെ അട്ട്രാക്റ്റ് ചെയ്യാൻ പറ്റി നമുക്ക് നമ്മളുടെ ഷോപ്പിന് അകത്തോട്ട് എഴര വരേ ഇൻവോൾ ചെയ്യാൻ സാധിക്കും ശരി ശരി ചേച്ചി അപ്പം പിന്നെ നമുക്ക് നാളെ പത്ത് മണിയാകുമ്പോൾ കാണാം